കുഞ്ഞ് മൃഗങ്ങളെ നമ്മൾ ഇപ്പം പട്ടി ആയാലും പശു ആയാലും ഒരു പശു കുഞ്ഞൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ നല്ല വൈക്കോലൊക്കെ ഇട്ട് അതിന് നല്ല രീതിയിലായിരിക്കും പരിപാലക്കുക കാരണം അതിന് നല്ല ചൂടായിരിക്കും ഏൽക്കാൻ നൽകുക അതുപോലെ തന്നെ ഇപ്പം ഒരു പട്ടിക്കുഞ്ഞ് ഉണ്ടായാൽ നമ്മൾ ആദ്യം അതിനെ വലിയ കൂട്ടിൽ കൊണ്ട് ഇടുകയാണോ ചെയ്യുക ഒരു ബോക്സിൻ്റെ ഉള്ളിൽ നല്ല തുണിയൊക്കെ വച്ചു കൊടുത്ത് അതിനെ നല്ല രീതിയിൽ പരിപാലിക്കും കോഴി ആണെങ്കിൽ ഇരുപത്തി ഒന്ന് ദിവസം മുട്ടയിട്ട് വിരിയുന്നു അത് അട ഇരുന്നു വിരിയുന്നു ആ കോഴിക്കുഞ്ഞ് ആ അമ്മയുടെ ചൂട് ഏറ്റ് ആയിരിക്കും അതായത് ഓരോ കുഞ്ഞ് മൃഗങ്ങളും അതിൻ്റെ ചൂട് ആ ഒരു ചൂട് ഏറ്റ് ആയിരിക്കും പിന്നീട് അങ്ങോട്ടേക്ക് ജീവിക്കുക പിന്നെ അത് ഇത്തിരി വലുതായി കഴിയുമ്പോഴായിരിക്കും ഇപ്പം പട്ടിയാണെങ്കിൽ പട്ടിയെ നമ്മൾ കൂട്ടിലേക്ക് ആക്കുന്നതും പശുവിനും പിന്നെ വൈക്കോലിൻ്റെ ആവശ്യമൊന്നും വേണ്ട കിടക്കാൻ അത് ഏത് തറയിൽ ആണെങ്കിലും പിന്നെ ഈ ഇത്തിരി വലുതായി കഴിയുമ്പോൾ കിടന്നോളും നമ്മൾക്ക് അങ്ങനെയൊക്കെയേ ഇതിനെയൊക്കെ പരിപാലിക്കാൻ പറ്റുള്ളൂ മൃഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിനെ നമ്മൾ എത്രയൊക്കെ സ്നേഹിക്കുന്നോ തിരിച്ചു അതേ സ്നേഹം നമുക്ക് തരും അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്നു പറയുന്നത് അതുകൊണ്ട് നമ്മൾ മൃഗങ്ങൾ നന്നായി നമ്മൾക്ക് എന്തെങ്കിലും ഒരു സാധനം ഉണ്ടോ അതിനെ നന്നായി നോക്കണം അതു പട്ടി ആയാലും പൂച്ച ആയാലും പശു ആയാലും എന്താണെങ്കിലും നല്ല രീതിയിൽ അതിനെ നോക്കണം നമ്മൾ അതിൽ ലാഭം നഷ്ടം വിചാരിക്കുന്നു എന്നൊരു കാര്യം ഇല്ല നമ്മടെ എന്താണോ നമ്മുടെ വീട്ടിൽ ഉള്ളത് അതിനെ നന്നായി നോക്കാൻ ശ്രമിക്കുക